ഇത് റഹ്മത്ത് ഹോട്ടൽ അല്ലേ ഞാൻ കൂറച്ചു മുമ്പ് കുറച്ച് ഓഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാന് കുറച് ചട്നികൾ സ്പെഷ്യൽ ചട്നികൾ എനിക്ക് കുറച്ച് വേണം ഒരു നാലഞ്ച് ഐറ്റം തേങ്ങ ചട്നി പിന്നെ തക്കാളി ചട്നി വെളുത്തുള്ളി ചട്നി അങ്ങനെ പുതിന ചട്നി അങ്ങനെ കുറെ വെറൈറ്റി ചട്നി ഐറ്റംസ് വേണം ദോശ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനു കഴിക്കാനുള്ള കുറെ വെറൈറ്റി ഐറ്റം ഒരു അഞ്ച് വെറൈറ്റി ചട്നികളാണ് എനിക്ക് വേണ്ടത് അതേപോലെ സോസും സൂപ്പ് ഐറ്റംസും കൊറച്ചു വെറൈറ്റി സൂപ്പൈറ്റംസും വേണം ഇങ്ങള് അത് അവിടെ ഉണ്ടോ അതോ വേറെ റസ്റ്റോറൻറ് വിളിച്ച് ഇതാക്കണോ ഞങ്ങള് ഇന്നത്തെ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളത് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നൊക്കറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു ഞാൻ